ഇപ്പഴെന്ന് പറയുമ്പോൾ കേരളം ഭയങ്കരമായിട്ട് മാറി പണ്ടെന്നൊക്കെ പറയുമ്പം ഭയങ്കരായിട്ടുള്ള രോഗങ്ങളും അതിൽ നിന്ന് പലരും മരിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പം ഇത്ര പേര് ഇതായി കഴിഞ്ഞ് ഇത്ര പേര് മരിക്കുക അങ്ങനെ ഒര് രീതിയായിരുന്നു ഇപ്പമെന്ന് പറയുമ്പം ഈ രോഗങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള മരുന്ന് കണ്ട് പിടിച്ചു പിന്നെ തൊട്ട് തൊട്ട് അടുത്തടുത്ത് പലതരത്തിലുള്ള ഹോസ്പിറ്റലു വന്നു അത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളുടേതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലെ ഈ ആവശ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തം ഇതാക്കണമെന്ന് പറഞ്ഞ് ഒരു വാശി ഉണ്ടാവില്ലെ അതിപ്പാ നമുക്കിപ്പം എന്തേലും ഒരു സാധനം വേണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം ഇതൊക്കെ നമ്മള് ഇങ്ങനെ ചെന്ന് ഇതാക്കണം ഐ മീൻ ഇത്ര ഇത്ര പൈസ കൊടുത്താല് ഇന്ന സാധനം കിട്ടുവൊള്ള് എന്നാലും നമ്മൾ അത് പോയിട്ട് മേടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യില്ലെ പിന്നേന്ന് പറയുമ്പം പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓരോ കുട്ടികളും ജെ ജനിക്കുന്നതും പിന്നെ അവരുടേതായിട്ടുള്ള ഓരോരോ ഇതൊക്കെ ഉണ്ടാവില്ലെ ഇപ്പോൾ ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ അവർക്ക് പണ്ടെന്നൊക്കെ പറയുമ്പം വീട്ടിൽ തന്നെയായിരുന്നു പ്രസവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊന്ന് പറയുമ്പം ഓരോ മാസം കൂടുമ്പള് അതിൻ്റെ സ്കാനിംഗ് കുട്ടീൻ്റെ ഓരോ സ്കാനിംഗ് അങ്ങനെയുള്ള ഇതൊക്കെ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാൻ ചെയ്യണം ഇന്ന മാസങ്ങളിൽന്നൊക്കെ പറഞ്ഞ്